ഈ സമുദായത്തിൻ്റെ പിന്തുണ കർഷകർക്കും കാർഷികവൃത്തിക്കും അത്യാവശ്യമാണെന്ന് ചിലപ്പോഴെനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മള് ചില സമുദായക്കാർക്ക് വേണ്ടി മാത്രം ചില കർഷകര് കൃഷി ചെയ്യും ചില അമ്പലങ്ങളിലേക്ക് ഇപ്പം ഭഗവതിയുടെ അമ്പലമൊക്കെയാണെങ്കിൽ അങ്ങോട്ട് മഞ്ഞൾപ്പൊടി ഒരു വഴിപാടായിട്ട് കൊടുക്കാൻ ചില ഭാഗക്കാര് മഞ്ഞള് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതവര് വളരെ വൃത്തിയോടും ശുദ്ധിയോടും എല്ലാം കൂടി ചെയ്യുന്നതാണ് കുറെ കുടുംബങ്ങള് പാരമ്പര്യമായിട്ട് അങ്ങനത്തെ കാർഷിക വൃത്തിയിലേർപ്പെടുന്നതായിട്ട് കേട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മാത്രല്ല സാമുദായികമായ എല്ലാകാര്യങ്ങളും അമ്പലത്തിലേക്ക് ആവശ്യമായ പൂവ് അങ്ങനത്തെ പൂവുകളും മാത്രം നട്ട് നനയ്ക്കുക പൂജക്കായിട്ടെടുക്കുന്ന പൂവുകള് മാത്രം തുളസി തെച്ചി താമര അങ്ങനെയുള്ള പൂവ്കള് മാത്രമായിട്ട് കൃഷി ചെയ്യുക അതെല്ലാം ഇത്പോലെ സാമുദായിക ആവശ്യങ്ങൾക്കായി അവര് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്നും ഒരു സംതൃപ്തി അധികമായി ലഭിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ കാർഷിക വൃത്തിയിലേർപ്പെടുന്നവർക്ക് എപ്പോഴും അതിൻ്റെതായ ഗുണങ്ങൾ ലഭിക്കാറുമുണ്ട് എൻ്റെ മുത്തശ്ശനൊക്കെ പറയാറുണ്ട് ഇതങ്ങോട്ടുള്ള മഞ്ഞപ്പൊടിയാണ് അതുണ്ടാക്കി തുടങ്ങിയതിന് പിന്നെ മണ്ണ് നന്നായി പിന്നീടവിടെ വേറെ കൃഷിയെടുക്കുമ്പോൾ കൂടുതൽ വിളവ് കിട്ടാറ്ണ്ട് അങ്ങനെക്കെ പഴമക്കാര് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതെല്ലാം നമ്മുടെ മനസ്സിനും ഒരു കൂടുതൽ എന്താ പറയുക കൃഷിയിലേക്കിറങ്ങാനും പിന്നെ പാരമ്പര്യമായിട്ട് വരുമ്പം നമ്മളുടെ കുട്ടികളിലേക്ക് അത് പകർന്ന് കൊടുക്കാനും സാധിക്കും അങ്ങനെ അവരെയും കൃഷിയെന്ന വലിയ ലോകത്തിലേക്ക് കൂട്ടി കൊണ്ട് വരാൻ മുതിർന്നവർക്ക് സാധിക്കും കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലായെന്ന് കുടുംബത്തിന് വേണ്ടി എന്നതിനേക്കാളും ഒരു അമ്പലത്തിന് വേണ്ടി അല്ലങ്കിലൊരു സമുദായത്തിന് വേണ്ടി ചെയ്യുക എന്ന് പറയുമ്പോളവർക്ക് അതിനോടുള്ള ഉത്സാഹം കൂടും